ഹലോ ഗ്രീൻസ് റെസ്റ്റോറൻറ്റല്ലേ ആ എനിക്ക് ഒരു കുറച്ച് ഭക്ഷണം വേണമായിരുന്നു ഇന്ത്യൻ ഭക്ഷണം എന്താ ഉള്ളത് കപ്പയും മീനും ഉണ്ടോ അതൊരു ഒന്ന് പിന്നെ ഇറ്റാലിയൻ പാസ്ത ഉണ്ടോ അത് ചാ ബി ചിക്കൻ പാസ്തയായിരിക്കണം ചീസൊക്കെ ഇട്ട് അടുത്തത് ചൈനീസ് എന്താ ഉള്ളത് ന്യൂഡിൽസുണ്ടോ ആ എന്നാ ചിക്കൻ ന്യൂഡിൽസ് പിന്നെ ഇതു കൊണ്ടുവരേണ്ടത് അമ്പൂരി എന്ന സ്ഥലത്താണ് അമ്പൂരിയില് ഹൗസ് നമ്പർ ടു ത്രീ ഫോറിലാണ് കൊണ്ടുവരേണ്ടത് രണ്ട് മൂന്ന് നാല് എത്രയും വേഗം എത്തിക്കുമല്ലോ അല്ലെ ആ നിങ്ങളുടെ ഭക്ഷണത്തെ കുറിച്ച് നല്ല അഭിപ്രായമാണ് അതുകൊണ്ടാണ് ഞങ്ങള് അങ്ങോട്ടു തന്നെ വിളിച്ചത് അപ്പോള് ഈ കപ്പയും മീനും അതുപോലെ ചിക്കൻ ന്യൂഡിൽസ് പാസ്ത ചിക്കൻ പാസ്ത ഇത് എത്രയും വേഗം എത്തിക്കണം കേട്ടോ ഓക്കെ